ഹലോ നമ്മൾ ഞങ്ങളിവിടെ കോഴിക്കോടുന്ന് വിളിക്കുന്നതാണ് ആ നമ്മളിവിടെ കേരളത്തിലെ സ്പെഷ്യാലിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വിളിക്കുന്നതാണ് കോഴിക്കോട് ഏതൊക്കെയാണ് നല്ല നല്ല ഹോസ്പിറ്റലുകൾ ഏതൊക്കെയാണ് ഉള്ളത്

ആണല്ലേ ആ ആ ആ

സൈക്കോളജിസ്റ്റ് അങ്ങനുള്ള കാര്യങ്ങളൊക്കെ മെഡിക്കൽ കോളേജിൽ അല്ലേ നീംസിലാ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എങ്ങനെയൊക്കെയാണ് സൗകര്യങ്ങളൊക്കെ

ആ ഇല്ലല്ലേ ഓ നമ്മക്കങ്ങനെ ഇങ്ങനെ നമുക്ക് ബുക്ക് ചെയ്തിട്ടൊക്കെ ഡോക്ടർമാരെ അങ്ങനെയൊക്കെ കിട്ടുമോ അപ്പോൾ നമ്മൾ നമ്പറ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യേണ്ടത് ആരുടെ അടുത്തൂന്നാണ്

ആണല്ലേ ആ ആ

ആ അങ്ങനെയാണല്ലേ അങ്ങനെയായിരിക്കുംല്ലേ ആ അപ്പം നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതിയല്ലേ ആ ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമുക്ക് ബുക്ക് ചെയ്യേണ്ട ദിവസം ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങളൊന്ന് നേരിട്ട് ബുക്ക് ചെയ്ത് തരുമോ ആ എന്നാൽ ഞാൻ ബുക്ക് ചെയ്യുന്ന ദിവസം നിങ്ങളെ വിളിക്കാട്ടോ ആ ആ ഓക്കെ